ഹലോ എയർടെല്ലിൻ്റെ കസ്റ്റമർ കെയർ നമ്പറല്ലേ ഞാൻ ഓൺലൈനായി റീച്ചാർജ് ചെയ്തിരുന്നു അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്സൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ സ്റ്റാറ്റസ്സൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് റീച്ചാർജ് ചെയ്തത് എൻ്റെ ലാസ്റ്റ് അക്ക നാലക്ക നമ്പർ എട്ട് അഞ്ച് പൂജ്യം ആറാണ് ഈ നമ്പറിൽ ഞാനിപ്പോൾ റീചാർജ് ചെയ്തിരുന്നു ഒരു മാസത്തേക്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ റീചാർജ് ഇനിയെപ്പം തീരും എത്ര മൊബൈൽ ഡാറ്റാ കണക്ഷനുണ്ട് അൺലിമിറ്റഡ് വോയ്സ് കോൾ ആണോ അതോ മെസ്സേജ് എത്ര മെസ്സേജ് അൺലിമിറ്റഡായി അയക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള വിവരങ്ങൾ എനിക്ക് അറിയാൻ താൽപ്പര്യമുണ്ട് പിന്നെ നെറ്റ് ഇൻ്റർനെറ്റ് സ്പീഡ് എത്ര കെ ബി വെച്ച് കിട്ടും അവസാനിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ഇനി പുതിയ റീചാർജ് ചെയ്യേണ്ടത് എന്നും എനിക്ക് അറിയേണ്ടതുണ്ട്